ഞങ്ങളുടെ നാട്ടില് വിനോദസഞ്ചാരികള് വരുന്ന ഒരു ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ദാ എന്താ വള്ളംകളി ഉണ്ട് അതുപോലെ അതൊരു പരമ്പരാഗതമായൊരു ഗെയിമാണ് വന് വർഷങ്ങളായിട്ട് നല്ല വർഷങ്ങളായിട്ട് ഉള്ള ഒരു ഗെയിമാണ് വള്ളംകളി അതൊരുപാട് ചുണ്ടൻവള്ളങ്ങളുടെയും മറ്റ് വലിയ വല്ലങ്ങളുടെയും ഒരു മത്സരമൊക്കെ നടക്കാറുണ്ട് നെഹ്റൂ ട്രോഫി എന്നൊക്കെ പറയും അപ്പോള് അതിന്റെ മത്സരങ്ങള് നടക്കാറുണ്ട് ആ വള്ളംകളി ഒരൂ നാടിന്റെ ഒരു ഉത്സവമാണ് അപ്പോള് അത് അങ്ങനെയുള്ളൊരു ഒരു ഒരു കേന്ദ്രമുണ്ട് അതുകൂടാതെതന്നെ സ്പോര്ട്സിന്റെ പരിപാടിയായിട്ട് ഈ വടംവലി മത്സരങ്ങള് നടക്കാറുണ്ട് ഞങ്ങളുടെയെല്ലാം ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലായാലും വടംവലി മത്സരങ്ങളിങ്ങനെ ചെറിയ ചെറിയ ജെ പിന്നെ ഓരോരോ ഗ്രാമങ്ങള് കേന്ദ്രീകരിച്ച് ഓരോ സ്പോര്ട്സ് ക്ലബ്ബുകള് ഉണ്ട് കെയറോഫില് ഈ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അതിങ്ങനെ നാട്ടില് മിക്കവാറും ഒരു വർഷത്തില് രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെയായിട്ട് അതിന്റെ പലാ നാട്ടിൽ പല സലത്തൂന്നുമീ പിന്നെ ടീമുകള് വന്ന് വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന അതൊരു നല്ലൊരു പരിപാടിയായിട്ടാണ് ഞങ്ങള്ക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഇതാണ് ജനങ്ങളെല്ലാവരും അതിനകത്ത് സഹകരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് നല്ല പരിപാടിയായിട്ട് അത് ന നടന്നു പോകുന്നുണ്ട് വടംവലി മത്സരം പിന്നെ വള്ളംകളിയും വടംവലിയും പിന്നെ കബഡി മത്സരം അങ്ങനെ ഞങ്ങളുടെ ഈ മേഖലയില് വളരെ കുറച്ച് കുറച്ചുണ്ട് എന്നാലും നമ്മളുടെ ടീമായിട്ടൊന്നും കുറച്ച് മത്സരങ്ങളേ ഉള്ളു ചെറിയ ചെറിയ കേന്ദ്രങ്ങളില് മാത്രമേ അതങ്ങനത് കാണുന്നുള്ളു ഞങ്ങളുടെ ജില്ലയെ ക്രമീകരിച്ച് നോക്കുമ്പോഴത്തേക്ക് കേന്ദ്രീകരിച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ടീമുകളുണ്ട് എന്നാലും ഒരുപാടത് വളരേ വ്യാപകമായിട്ട് കാണുന്നില്ല കബഡി കളി മത്സരം മത്സര അത് ഇങ്ങനെ സ്കൂളുകളിലും മറ്റും കേന്ദ്ര മറ്റും മറ്റുള്ള സ്ഥാപനങ്ങളുമൊക്കെ ക്രമീകരിച്ചാണത് ചെയ്തുണ്ടിരിക്കുന്നത് വടംവലി നമ്മുടെ മേഖലകളിലൊക്കെ എല്ലാ ഗ്രാമങ്ങ നമ്മുടെ നാട്ടിലും പുറത്ത് ഒരു മത്സ നല്ലൊരു പരിപാടിയായിട്ട് നടക്കുന്നുണ്ട് വടംവലി ഏകദേശം ഇപ്പോള്ത്തന്നെ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പിട്ട് തന്നെ ഞങ്ങളുടെ അടുത്തൊരു വടംവലി മത്സരമുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ അടുത്ത് ഇനിയിപ്പോള് അടുത്ത് ഞങ്ങള് ഏഴാം തീയതി ഈ വരുന്ന ഏഴാം തീയതി ഞങ്ങളുടെ നാട്ടിലിവിടെ നമ്മുടെ ഈ കുന്നുമ്മ നമ്മളിരിക്കുന്ന സ്ഥലത്ത് ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോള് അത് നല്ല പത്തിരുപത് ഇരുപത്തിയഞ്ചും മുപ്പതും ടീമുകള് വരും രാത്രി ഇവിടൊരു ഫുള് നൈറ്റ് ഫുള്ളായിട്ട് അതിന്റെ പരിപാടികളാണ് മത്സരിച്ച് ഹീറ്റ്സും പിന്നെ സെമി ഫൈനലും ഫൈനലുമൊക്കെ ആയിട്ട് ഏകദേശമത് ഒരു വെളുക്കുന്നതുവരെ നേരം വെളുക്കുന്നത് വരെയുള്ളൊരു പ്രോഗ്രാമായിട്ട് രാത്രി പരിപാടിയായിട്ടാണ് ചെയ്യുന്നെ അത് കാരണം ഈ വണ്ടി റോഡിലൊക്കെ വച്ച് ക്രമീകരിക്കുന്നതുകൊണ്ട് വാഹന സൗകര്യം മ മറ്റു തടസ്സങ്ങളൊന്നുമുണ്ടാവാതിരിക്കാനും മറ്റു ബുദ്ധിമുട്ടുകള് വരാതിരിക്കാനുമൊക്കെയായിട്ട് അങ്ങനത് ക്രമീകരിക്കുന്നു അപ്പോള് അങ്ങനെ വാ നല്ല മത്സരങ്ങള് നടക്കുന്നുണ്ട് വള്ളംകളിയാണ് കേരളത്തിന്റെ തനിമയെ കാ കാണിക്കുന്ന ഒരു നല്ല മത്സരം നല്ലൊരു പ്രോഗ്ര ഇതാണ് അത് എല്ലാവർഷവും വള്ളംകളി മത്സരങ്ങളതിന് വേണ്ടിയിട്ട് വള്ളങ്ങള് ക്രമീകരിക്കുകയും ചുണ്ടൻ വള്ളങ്ങളും മറ്റും ക്രമികരിക്കുകയും ടീമുകള് തന്നെ ഉണ്ട് ഓരോ ക്ലബ്ബുകള് അവരത് വളരെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി മത്സരം പിന്നെ പ്രോഗ്രാമാണതവരത് എല്ലാം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണാ ഈ വള്ളംകളി അത് അവര് ആ കുട്ടനാട് മേഖലലയില് ആലപ്പുഴ ജില്ലയിലാണത് കൂടുതലും നടക്കുന്നത് അപ്പോള് അത് ഭയങ്കരമായിട്ട് നല്ലതുപോലെ ചെയ്യുന്നുണ്ടത് അന്നിട്ടത് മത്സരമാണ് കേരളത്തിന്റെ ഒരു തനിമയെ കാണിക്കുന്ന വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മൽ പരിപാടിയാണ് വിനോദസഞ്ചാരികളൊക്കെ വന്നവിടെ ഇഷ്ടംപോലെ വന്ന് കാണുന്നുണ്ടത് അത് ഈ ഗെയിം ഈ പരിപാടികള് ഈ വള്ളംകളിയൊക്കെ വല്താ വരുമ്പോഴത്തേക്കും പുറത്തുനിന്നാൾക്കാര് വന്ന് ഇഷ്ഠംപോലെ വന്ന് കാണുകയും അതിനായിട്ട് സംബന്ധിക്കാനായിട്ടൊക്കെ ആൾക്കാര് വരുന്നുണ്ട്